ഞാൻ ഈ മൂന്ന് പറഞ്ഞതിലും ഞാൻ ഏർപ്പെടാറുണ്ട് എർപ്പെടാറുണ്ട് കാരണെന്താ വെച്ച് കഴിഞ്ഞാൽ നീന്തലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കാരണെന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നീന്തൽ പടിച്ചിരിക്കേണ്ടൊരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് കാരണെന്താ വെച്ചാൽ എപ്പോഴാണ് പ്രളയം വരാ എപ്പോഴാണ് നമുക്ക് വെള്ളത്തിലൊക്കേ ഇപ്പം ഒരാൾ വെള്ളത്തിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാനൊക്കേ വേണ്ടിട്ട് നമുക്ക് നീന്തൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണെന്താ വെച്ചു കഴിഞ്ഞാൽ ഒരത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഒരാൾടെ ജീവൻ രക്ഷിക്കുകാന്നൊക്കേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് കാരണെന്താ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നീന്തൽ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലമാണിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നീന്തൽ പഠിക്കുവാണെങ്കിൽ നമ്മളിപ്പം നല്ല രീതിയിൽ നീന്തൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കേ കിട്ടും നമുക്കിപ്പോൾ അതൊരു ഒരു കോമ്പറ്റിഷൻ ആയിട്ട് എടുക്കുവോ നമുക്കൊരു വരുമാനമായിട്ട് എടുക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കേ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെന്നു പറഞ്ഞാൽ ക്രിക്കറ്റ് ക്രിക്കറ്റ്ന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമുള്ളൊരു സംഭവമാണ് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂട്ടുകാരൊക്കെ കൂടീട്ട് കളിക്കുന്ന ഒരു ഇതാണ് പിന്നെ കളി കാണാറുണ്ട് കളിക്കാറുണ്ട് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെന്ന് പറഞ്ഞാൽ ഈ യാത്ര നമ്മളിപ്പോൾ എന്തെങ്കിലൊരു യാത്രക്കൊക്കെ പോവാന് ഭയങ്കര എനിക്ക് കാര്യമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ വണ്ടിയൊക്കേ എടുത്തിട്ട് യാത്ര പോവാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത്